എനിക്കിന്നുണ്ടായ വളരെ ഒരു മോശമായിട്ടുള്ള ഒരനുഭവത്തെപ്പറ്റിയാണ് ഇവിടെ ഞാൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ പോകുന്നത് അതായത് ഇന്ന് ഞാന് തിരുവല്ലായിൽ നിന്ന് കോട്ടയം വരെ ഒരു ടാക്സി ബുക്കെയ്ത് അതായത് ഉബർ ബുക്കെയ്തിട്ടാണ് പോയത് അപ്പോള് എന്താണ് ഉണ്ടായെന്ന് വച്ചുകഴിഞ്ഞാല് ഇന്നത്തെ ഈയൊരു സമയത്ത് പ്രത്യേകിച്ച് കോവിഡൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കോവിഡൊക്കെ ഒരുവിധത്തിൽ ഒഴിഞ്ഞുപോകുന്നൊരു സമയത്ത് മാസ്ക്ക് ധരിക്കുകയെന്നൊക്കെ പറഞ്ഞാല് വളരെ അധികം അത്യാവശ്യമായ സാഹചര്യത്തിൽ ഇന്ന് ഓടിച്ച ടാക്സി ഓടിച്ചിരുന്ന ആ ഡ്രൈവര് മാസ്ക്ക് ധരിക്കാതെയാണ് ഇരുന്നത് ഞാൻ അങ്ങോട്ട് മാസ്ക്ക് ധരിക്കാമോ എന്ന് ചോദിച്ചിട്ടുപോലും അദ്ദേഹം അതിന് തയ്യാറായില്ല അതിന് ശേഷം ആ ടാക്സിക്കുള്ളില് അത്രയും നേരം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇരുന്നതെങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളു കാരണം അതിനുള്ളില് അത്രയധികം അഴുക്കും അതിന് മുമ്പ് കേറിയ ആൾക്കാരിട്ട വേസ്റ്റുകളായിക്കോട്ടെ അതില് പറ്റിയിരിക്കുന്ന ചെളി ആയിക്കോട്ടെ വളരെയധികം വൃത്തിഹീനമായൊരു സാഹചര്യം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരുപാട് ആൾക്കാര് ഉപയോഗിക്കുന്ന കയറുന്ന ഇറങ്ങുന്ന ഒരു വാഹനം എന്ന നിലയിൽ അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അത് ഓടിക്കുന്ന ആളുടെയും അതേപോലെതന്നെ അത് പ്രവർത്തിപ്പിക്കുന്ന ഏജൻസികളുടെയും ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോള് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യംകൂടിയാണ്